ആദ്യം ഞാൻ എടുത്ത ഫോട്ടോ ഞങ്ങളുടെ പള്ളിയുടെയാണ് അത് അച്ഛനെക്കണ്ട് വെഞ്ചരിപ്പിക്കാൻ വന്ന് വെഞ്ചരിച്ചിട്ട് എടുത്തതാണ് അമ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത് ഫോൺ കിട്ടിയെന്നല്ല ഫോൺ വേടിച്ചത് എനിക്കതുവരെ എനിക്ക് ഫോണിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എനിക്കെന്തോ അതൊരു പേടി പോലെയായിയിരുന്നു പിന്നെ അമ്പത് വയസ്സൊക്കെ പിന്നെ പിള്ളേർക്കും അവിടെ ഇവിടെയൊക്കെയായി പിള്ളേർ പിന്നെ എല്ലാവരുടെയും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ വിരൽത്തുമ്പിൽ കിട്ടണമെങ്കിൽ പിന്നെ ഞാനും ക്രമേണ ഫോണിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞു അങ്ങനെ എനിക്കും ഫോൺ കിട്ടി അപ്പോൾ ഏതായാലും വേടിച്ചതല്ലേ അച്ഛനെക്കൊണ്ട് വെഞ്ചരിപ്പിച്ചേക്കാം എന്നോർത്ത് അങ്ങനെ കൊണ്ട് വന്ന് അന്ന് ഫോട്ടോ എൻ്റെ മകളുടെ സഹായത്തോട് കൂടിയാണ് ഞാൻ എടുത്തത് എന്നിരുന്നാലും നല്ലൊരു അനുഭവമായിരുന്നു